ഇൻ്റർനെറ്റും നവമാധ്യമങ്ങളും എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് ഇന്ന് ലോകത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ടി വിയിൽ കൂടി അറിയുന്നതിനുമുന്നെ തന്നെ നമ്മുടെ കൈയ്യിലൊരു സ്മാർട്ഫോൺ ഉണ്ടെങ്കിൽ നമ്മൾ ഇരുന്ന സ്ഥലത്തുനിന്നു തന്നെ നമുക്ക് ഇന്ന് പല കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് അതുകൂടാതെ മാധ്യമങ്ങളിൽ കൂടി അറി അറിയുന്ന അറിയുന്ന കാര്യങ്ങളേക്കാൾ കൂടുതൽ നമുക്ക് ഇൻ്റർനെറ്റ് വഴിയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് മാധ്യമങ്ങൾ കൂടി അറിയുന്നുണ്ടെങ്കിലും നമുക്ക് പല കാര്യങ്ങളും പെട്ടെന്ന് എന്തെങ്കിലും ഒരു സംശയം വന്നാലോ എന്തെങ്കിലും ഒന്ന് അറിയണമെങ്കിൽ നമുക്കിനി ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അറിയാൻ സാധിക്കും ഇന്ന് പല രോഗങ്ങളും പലതരത്തിലുള്ള രോഗങ്ങളും പല ആളുകൾക്കും വരുന്നതാണ് ആ സമയത്ത് നമുക്കൊരു രോഗം വന്നുകഴിഞ്ഞാൽ അതിൻ്റെ ലക്ഷണം എന്താണ് അല്ലെങ്കിൽ അതിനൊരു മരുന്ന് എന്താണ് ഉപയോഗിക്കേണ്ടത് മരുന്ന് എന്താണ് ഏത് ഡോക്ടറെ കാണിക്കണം അല്ലെങ്കിൽ ഓരോ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ അറിയുന്നതിനൊക്കെ നമുക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് ഒരു മരുന്ന് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ മരുന്ന് ആ മരുന്നിൻ്റെ ഗുണങ്ങൾ അത് എന്തിന് വേണ്ടിയൊക്കെയാണ് ഉപയോഗിക്കുന്നത് ആ മരുന്നിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഒക്കെ എന്തൊക്കെയാണ് അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഇന്ന് ആ ഒരു സ്മാർട്ഫോണിൽക്കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നുണ്ട്